യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളത് ഗളിവേഴ്സ് ട്രാവൽ ആണ് അതിൽ ഗളിവർ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ കടൽ വഴി നടത്തിയ ഒരുപാട് യാത്രയെ പറ്റിയാണ് ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അത് ശരിക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു യാത്ര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ വ്യക്തി പോകുന്ന ഓരോ സ്ഥലത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വളരെ വ്യ വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ആ സ്ഥലം കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്കു ഇയാൾ എത്തിപ്പെടുന്നത് ഒരുപാട് ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് വഴിയിലൂടെ ആണ് ഈ ഗളിവർ എന്ന് പറയുന്ന വ്യക്തി ഈ പോയ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുള്ളത് അതിൽ ഉദാഹരണമായിട്ട് രണ്ടു സ്ഥലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമനുഷ്യരുള്ള സ്ഥലത്തും അതായത് ലില്ലിപുട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരെല്ലാം ഉറുമ്പുമണി പോലത്തെ ആൾക്കാരാണ് അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ ആ സ്ഥലത്തേക്ക് പോയതും ആ സ്ഥലത്തു നടന്ന സംഭവങ്ങളും ആ സ്ഥലത്തുള്ള ആൾക്കാർ ഗളിവറിനെ കണ്ടപ്പോൾ ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഗളിവർ എന്ന് പറയുന്ന വ്യക്തി വളരെ ഒരു വലിയ ഒരു ഭീകരനായ ഒരു ഒരു ജീവിയായിട്ടാണ് തോന്നിയത് കാരണം ആ നാട്ടിലുള്ള ആൾക്കാർ വളരെ കുഞ്ഞു സൈസിലുള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെ അവിടെ ഉള്ള കാര്യങ്ങളും അവിടെ നടന്നതും ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു സ്തലത്തെ ഗളിവർ മറ്റ് രാജ്യക്കാരും അല്ലെങ്കിൽ മറ്റ് സാമ്രാജ്യക്കാരിൽ നിന്നും ആ രാജ്യത്തെ യുദ്ധത്തിൽ നിന്നും രക്ഷിച്ചതും ഒക്കെയാണ് ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം നേരിൽ നടന്നിട്ടുള്ള കഥ എന്ന രീതിയിലാണ് ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് അതൊക്കെ ഇനി രണ്ടാമത്തെ ഒരു സ്ഥലത്തേക്കു ഈ ഗളിവർ എന്ന് പറയുന്ന വ്യക്തി സഞ്ചരിച്ചിട്ടുള്ളത് ഗളിവറിനെക്കാളും വലിയ മനുഷ്യർ ഉള്ള സ്ഥലത് അതായത് ഒരുപാട് വലിയ സൈസ് ഉള്ള മനുഷ്യർ ഉള്ള സ്ഥലത്താണ് രണ്ടമതായി ഗളിവർ സഞ്ചരിച്ചത് അവിടെയും ഇതുപോലെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളും കുറേ സംഭവങ്ങളും ഒക്കെ ആയി നടന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ അതി സാഹസികമായി ഗളിവർ രക്ഷപ്പെടുകയും അവരോടൊക്കെ ഇടപഴകുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അത്ഭുതകരമാക്കി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബുക്ക് തന്നെയാണ് ഗളിവേഴ്സ് ട്രാവൽ എന്ന് പറയുന്ന ഒരു പുസ്തകം